പാചകം ചെയ്യുകയെന്നുള്ളത് എത്ര നേരം എന്നുള്ളതിലല്ല എനിക്ക് വളരെ ഏറെ ഇഷ്ടമുള്ള കാര്യം ആണ് നമുക്കും നമ്മളെ അടുത്ത് ഉള്ളവർക്കും വേണ്ടപ്പെട്ട നമ്മളെ മക്കള് ഹസ്ബന്റ് വീട്ടുകാര് എല്ലാവർക്കുമുള്ള പാചകം ചെയ്യാ എന്താ പറയുക പാചകം ഒരു കലായാണ് നമുക്കത് വളരെ ഇഷ്ടത്തോടെ ചെയ്യാനുള്ളൊരു ഇഷ്ടം ഉണ്ട് പിന്നെ പാചകം വളരെ നല്ലൊരു കലയായിട്ട് തന്നെ നമുക്ക് എന്താ പറയുക നമുക്ക് സന്തോഷത്തോടുകൂടി ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് കൂടിയാണ് പാചകം ചെയ്യുകയെന്നുള്ളത്